നമ്മുടെ ശാസ്ത്രസാങ്കേതികവിദ്യയുടെ കണ്ടുപിടിത്തങ്ങൾ നമ്മളെ തീർച്ചയായും ആയാസരഹിതമായ ഒരു ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുന്നവയാണ് കാരണം നമ്മുടെ പണ്ടത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ബാങ്കിംഗ് ആവശ്യത്തിനായിട്ട് പോവുകയാണെങ്കിൽ പണ്ടാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കാത്തുനിൽക്കുകയും നോട്ടുകൾ എണ്ണുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എത്രയും വേഗം നമ്മുടെ ജോലി തീർത്തു തിരിച്ചുവരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എത്ര വലിയ കണക്കുകൾ ആണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ശരിയാക്കാൻ കഴിയും അതേപോലെ തന്നെയാണ് നമുക്ക് എത്ര ദൂരെയുള്ള ആൾക്കാരുടെയടുത്ത് നമ്മുടെ ആശയവിനിമയം നടത്താൻ കഴിയുന്നത് പണ്ടൊക്കെ പോസ്റ്റിലാക്കി അയക്കുമ്പോൾ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമ്മളെ ഒരു നിർദിഷ്ട സ്ഥലത്ത് അത് എത്തുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒരു വിരൽ ഞൊടിക്കുന്ന സമയത്തിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആരെ അറിയിക്കണമോ അവിടെ നമുക്ക് അറിയിക്കാം ഇല്ലെങ്കിൽ എന്തെങ്കിലും അയയ്ക്കണം അത് നമുക്ക് അയയ്ക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് എന്തുകൊണ്ടും ഏതു മേഖലയിൽ എടുത്താലും നമ്മുടെ ശാസ്ത്രസാങ്കേതിക വിദ്യയുടെ കണ്ടുപിടിത്തങ്ങൾ നമ്മളെ ആയാസരഹിതമായ ഒരു ജീവിതത്തിലേക്ക് തന്നെയാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത്